ഞാൻ റെയിൽവേ ടൈം അറിയാൻ റെയിൽവേയുടെ ആപ് ഉപയോഗിക്കാറുണ്ട് കാരണം എനിക്ക് മലപ്പുറത്ത് ഫുഡ്ബോൾ കളിക്കാൻ പോവുന്നതിനാൽ അപ്പോൾ തിരിച്ച് വരുന്നതിനായും അങ്ങോട്ടുപോകുന്നതിനുമായി യാത്ര സൗകര്യത്തിനായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും അതും സമയങ്ങൾ അറിയാൻ വേണ്ടിയും ഞാൻ ആപ്പ് എടുത്തിട്ടിട്ടുണ്ട് അത് വളരെ സഹായകമാണ് സ്ഥലം എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റുകയും നമുക്ക് ട്രെയ്ൻ ടിക്കറ്റെടുക്കാൻ സാധിക്കുകയും ട്രെയിനിന്റെ സമയം അറിയാൻ പറ്റുകയും ചെയ്യുന്നു ഇത് വളരെ ഉപയോഗകരമാണ് എല്ലാവർക്കും വളരെ ഉപയോഗകരമാണ് ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും ട്രെയ്ൻ ആദ്യമായി കേറുന്നവർക്കും എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്